സാധാരണ സാധാരണയായി ഒരു പുസ്തകം കൈയിൽ കിട്ടുകയാണെങ്കിൽ ഉടൻ തന്നെ വായിച്ച് തീർക്കാനാണ് എൻ്റെ ശ്രമം കാരണം പണ്ട് ചെറുപ്പകാലങ്ങളിൽ ഒക്കെ കിട്ടുമ്പോൾ തന്നെ വളരെ ആവേശത്തോടെ കൂടി ഇരുന്നു വായിക്കുമായിരുന്നു

പിന്നെ എത്രയും പെട്ടെന്ന് വായിച്ച ഇൻട്രസ്റ്റിങ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് വായിച്ചു തീർക്കാം എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അതിന് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടും വായിച്ചു തീരും പക്ഷേ അത്ര ഇൻട്രെസ്റ്റിംഗ് അല്ലാത്തത് ആണെങ്കിൽ രണ്ട് മൂന്ന് ആഴ്ച കൊണ്ടൊക്കെയേ വായിച്ച് തീരാറുള്ളൂ പിന്നെ നമ്മുടെ എനിക്ക് അങ്ങനെ പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ല വായിച്ച് ആസ്വദിക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ടും അതിനുള്ള ഒരു അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ അല്ല പിന്നെ പഠനവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണെങ്കിൽ നമ്മളെ സമയബന്ധിതമായിട്ട് തീർക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഇപ്പോൾ പഠനം പഠനം അല്ലെങ്കിൽ നമ്മളുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ വായിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കും പക്ഷെ വായനയ്ക്ക് അധികം സമയം ഇന്ന് ഉപയോഗം ചെലവഴിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ വസ്തുത പലപ്പോഴും പുസ്തകൾ നമ്മൾക്ക് ലഭ്യമാകാറില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ധാരാളം പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് ലൈബ്രറികളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ കോളേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലൈബ്രറികളൊക്കെ വളരെ സമീപസ്ഥമാണ് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ലൈബ്രറികൾ കുറവാണ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ട് ഒരു പുസ്തകം വാങ്ങിച്ചൊക്കെ വായിക്കണം അത് പലപ്പോഴും നമ്മൾക്ക് സാധ്യമായും വരുന്നില്ല വല്ലപ്പോഴുമൊക്കെ പുസ്തകങ്ങളെ കൈയ്യിൽ കിട്ടാറുള്ളൂ അത് കഴിവതും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം വളരെ വലിയ ബുക്കുകൾ ഒക്കെ ആണെങ്കിൽ ഒരാഴ്ച അല്ലെ രണ്ടാഴ്ചയൊക്കെ എടുത്ത് വായിക്കാനാണ് ശ്രദ്ധിക്കാറുള്ളത് പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് പഠനം പഠനമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ വളരെ സമയബന്ധിതമായ അത്യാവശ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ വായിച്ചു തീർക്കാൻ ശ്രമിക്കും പഷെ സമയ ലഭ്യത നമുക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്തുന്ന ഒരു സമയ ലഭ്യത ഇല്ലാത്തത് വളരെ ഒരു ക്ലേശകരമായ വസ്തുതയാണ് സമയം ലഭിക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കും രണ്ടോ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കകം കൊണ്ട് തന്നെ ഒരു പുസ്തകം തീർക്കാനായിട്ട് ശ്രമിക്കും